ഹലോ ആ ഇത് ബേക്കറി അല്ലേ മാം ആ എനിക്കൊരു ഇരുനൂറ്റൻപത് ലഡു വേണമായിരുന്നു ആ വീട്ടിൽ പൂജ ഉണ്ട് ആ പൂജ ഉണ്ട് അതിന് വേണ്ട ആവശ്യത്തിനാണ്

വേറെ എന്തൊക്കെയുണ്ട് മാം മിൽക്ക് പേടയുണ്ടോ ആ അതിൻ്റെ രണ്ട് കളർ വേണം ആ ബദാം പേടയും മിൽക്ക് പേടയും വേണം ആ പിന്നെ ജിലേബി ഉണ്ടോ മാം യെല്ലോ യെല്ലോ ഓറഞ്ചോ ഓക്കെ ലഡു രണ്ട് ടൈപ്പ് വേണം കേട്ടോ ലഡു രണ്ട് ടൈപ്പ് വേണം ജിലേബി രണ്ട് ടൈപ്പ് പിന്നെ ഹോം ഡെലിവറി ഉണ്ടല്ലോ മാം ഓക്കെ ഇതിന് ഇരുനൂറ്റൻപത് ലഡുവിന് എത്രയാണ് മാം ഓക്കെ ഞാൻ സ്ഥിരം കസ്റ്റമർ അല്ലെ മാം എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ ആ ഓക്കെ മാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് മാം വേറെ എന്തൊക്കെയുണ്ട് ഇത് വെറൈറ്റി ആയ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടോ അതെയോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ ഒരു കിലോ എടുത്താൽ മതി പിന്നെ രണ്ട് കളർ ലഡു വേണം കേട്ടോ രണ്ട് കളർ വേണം മറ്റേ യെല്ലോ ഓറഞ്ച് ഓക്കെ ആ അതുണ്ടോ മാം ഓക്കെ അപ്പോൾ അതും ഒന്ന് എടുത്തോ ഓക്കെ ആ ഇരുനൂറ്റൻപത് തന്നെ ഉണ്ടാകണം കേട്ടോ ആ ഓക്കെ മാം പിന്നെ ഇല്ലേ മാം ആ ആ ഹോം ഡെലിവറി ഉണ്ടല്ലോ ആ ഓക്കെ മാം ആ ഓക്കെ മാം വേറെ ഒന്നും വേണ്ട മാം എടുത്ത് വയ്ക്കാം ഓക്കെ ശരി